ഹലോ ആ ഞാൻ വായനാട്ടിൽ ഉള്ള ഒരാളാണേ എൻ്റെ പേര് സുനീറയാണ് എനിക്ക് മലപ്പുറത്ത് മലപ്പുറത്തേക്ക് ഒന്ന് വരണം എന്നുണ്ട് അപ്പോൾ അവിടെ എന്തോ കോട്ടക്കുന്നിനെക്കുറിച്ച് അറി അറിയാൻ കഴിഞ്ഞു അപ്പം അവിടെ ഉള്ള കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞ് തരുമോ

ആ ആ ആ ആ ആ ആ ആ ആ മലപ്പുറത്ത് മലപ്പുറത്ത് എവിടെ വന്നാലാണ് എവിടെയാണ് വരേണ്ടത് ആ ആ ആ ആ ആ ആ ആ ആ ആ ആ ആ ആ പറ

ആ കാഴ്ചകളൊക്കെ നിങ്ങൾ പറഞ്ഞത് പോലെ നല്ലോണം ഉണ്ടല്ലോ അല്ലേ കാണാനൊക്കെ പറ്റിയത് ഉം ഉം

ആ ആ ആ ആ ആ ഞാൻ ബസ്സിനാണ് വരുന്നത് ആ ആ ആ ആ ഉം ആ എന്നാൽ ഞാൻ അവിടെ എത്തിയിട്ട് പറയാം കേട്ടോ ഓ ഓ ഓക്കെ